ഒത്തിരി പേര്ക്ക് ഒരേസമയം ആയാസമില്ലാതെ ദീര്ഘദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു യാത്ര സൗകര്യമെന്ന് പറയുന്നത് ട്രെയ്ന് തന്നെയാണ് ബെസ്സിൽ യാത്രചെയ്യുന്നത് വെച്ചുനോക്കുമ്പോൾ നമ്മളീ ഇരിക്കുന്ന ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കണം അത് നമുക്ക് ശാരീരികമായിട്ട് കുറേ അധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഫ്ലൈറ്റെ ന്ന് പറയുമ്പോൾ കുറച്ച് സമയമേ ആവുകയുളളൂ പക്ഷെ അതില് ചാര്ജ് വളരെയധികമായിരിക്കും അപ്പോൾ ട്രെയ്നാണെങ്കിൽ നമുക്ക് സാധാരണക്കാര്ക്ക് നല്ലതു തന്നെയാണ് ട്രെയ്ന് യാത്ര എന്ന് പറയുന്നത് ദീര്ഘ ദൂര ദീര്ഘദൂര യാത്രകള്ക്കും നല്ലതാണ് ഞാന് ആന്ധ്രാപ്രദേശിലോട്ട് ഒരൂ പത്ത് പതിനഞ്ചു വര്ഷം മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് ആ ഓര്മ്മവെച്ചു പറയുകയാണെങ്കിൽ ഇരിപ്പിടമെന്ന് പറയുന്നതും മൊത്തം ആറ് എട്ട് സീറ്റുണ്ട് ഇരിക്കുന്നതും പിന്നെ ബെര്ത്ത് താഴത്തെ ഇതും കൂട്ടിയാണെങ്കില് ആകെ മൊത്തം എട്ട് ബെര്ത്ത് എട്ട് സീറ്റ് എട്ട് ബെര്ത്തുണ്ട് മുകളിൽ രണ്ട് ബെര്ത്തും പിന്നെ താഴെ ഇരിക്കുന്ന സീറ്റിലും കൂടെ ഒരാള്ക്ക് കിടക്കാനായിട്ട് സാധിക്കും പിന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ കല്ക്കരി ഉപയോഗിച്ചിട്ടാണ് ട്രെയിന് ഓടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഡീസലിലോട്ട് മാറി ഇപ്പോൾ കൂടുതലും വൈദ്യുതി ഉപയോഗിച്ച് തന്നെ ഓടുന്ന ട്രെയിനുകളാണ് കൂടുതലുള്ളത് ശബ്ദം ഭയങ്കര ശബ്ദം തന്നെയായിരിക്കും ഇതിന്റെ ട്രാക്കെന്ന് പറയുന്നത് കോൺക്രീറ്റ് പാതകള് നിരത്തിവെച്ചിട്ടുള്ള അതിലൂടെ ഇരുമ്പുകൊണ്ടുള്ള ട്രാക്കുകളുണ്ടാവും ആ ട്രാക്കിലൂടെ സ്യൂട്ടാവുന്ന ആ ട്രാക്കിലൂടെ സൂട്ടാവുന്ന ചക്രങ്ങളായിരിക്കും ഇതിനുള്ളത്